ഹലോ ഓക്കെ ഹലോ ആ മൂന്ന് ദിവസമായിട്ട് പനിയായിരുന്നു അപ്പോൾ ഇപ്പോൾ വൈറൽ പനി അങ്ങനെ എന്തേലുമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു തലവേദനയും മൂന്ന് ദിവസം

വേറെ തലവേദനയും ചുമയുമുണ്ട് അതുതന്നെയുള്ളൂ വേറെ ഇല്ലില്ലില്ല വീട്ടിൽത്തന്നെയായിരുന്നു

തണുത്ത തണുത്ത വെള്ളം കുടിക്കാറുണ്ട് ഭക്ഷണം ചൂടാക്കിയിട്ടു തന്നെയാ കഴിക്കാറ് ഇല്ലില്ലില്ല ഇല്ലില്ല വേറെ ഈ ടേസ്റ്റൊക്കെ മാറി ആ ടേസ്റ്റ് വ്യത്യാസമുണ്ട് സ്മെല്ല് ആ സ്മെല്ലും അതെപോലെത്തന്നെ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്

ഇല്ലില്ല ക്വാറൻ്റൈനായിട്ടുണ്ട് പക്ഷെ വന്നിട്ടില്ല സമ്പർക്കം ക്വാറൻ്റൈനായിട്ടുള്ള ആളുമായിട്ടുണ്ടായിരുന്നു വേറെ അങ്ങനെ ആരും ഇല്ലില്ല ഇപ്പോൾ പാരസെറ്റമോൾ കഴിച്ചു നിൽക്കുകയാ വേറെയൊന്നുമില്ല ആ വാക്സിനെടുത്തായിരുന്നു വാക്സിൻ കോവാക്സിൻ കോവാക്സിൻ ഒന്നേയെടുത്തുള്ളൂ അതെ ഓക്കെ